ഞാൻ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യമാണ് അതിൽനിന്നുള്ള ഒരു മാർഗ്ഗം അതിൽ നിന്നുള്ളതാണ് ഉപജീവനമായിട്ട് കൊണ്ടുപോകുന്നത് നമ്മള് നമുക്ക് ഏത് ജോലിയും അതിൻ്റെതായ തന്മയത്തത്തോടെ നല്ലതുപോലെ ചെയ്യുമ്പോൾ അതും നമുക്ക് നല്ലതാണ് പെട്ടന്ന് ഒന്നിൽ നിന്നും നമുക്കൊരു ബെനിഫിറ്റ് കിട്ടില്ല കഷ്ടപ്പെട്ട് നാളുകൾ കഴിയുമ്പോൾ നമുക്ക് ബെനിഫിറ്റുള്ളൂ പെട്ടന്ന് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അത് അധിക കാലം പോവുകയില്ല അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് അതിൽ നിന്ന് കിട്ടുന്ന ജോലി പിന്നെ ചെറിയ ചെറിയ ബിസ്സിനെസ്സുകൾ ഈ ചിപ്സുണ്ടാക്കുക പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക അച്ചാറുണ്ടാക്കുക അത് പിന്നെ മാർക്കറ്റുകളിൽ കൊണ്ട് കൊടുക്കുക അതൊക്കെയാണ് ഇതിൽനിന്നു കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുറച്ച് കുറച്ച് പേരുണ്ട് കുറച്ച് സ്റ്റാഫുണ്ട് അവരെയൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ്